ബൈക്കിംഗ് ലോകത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെന്ന് പറയുന്നത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനാണ് കാരണം അങ്ങനെ യാത്ര ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ മാത്രം കാര്യം നോക്കി മുന്നോട്ട് യാത്ര ചെയ്യാനും അതും എനിക്കിഷ്ടം ഉള്ള സലത്ത് പോകാനും നമുക്ക് പറ്റും എന്നാല് കൂടെ ഒരാളുണ്ടെങ്കിൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ കൂടി നമ്മൾ നോക്കേണ്ടിവരും ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഒരു ഹിമാലയം ലക്ഷ്യംവെച്ച് പോവുകയാണെങ്കിൽ പകുതി വഴി എത്തിയ നമ്മുടെ കൂടെ വരുന്ന യാത്ര ചെയ്യുന്നവർക്ക് ശാരീരികം അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾകൂടി പരിഗണിച്ച് നമുക്ക് യാത്ര ഫുള്ള് അത് പൂർത്തിയാക്കാൻ പറ്റാത്തൊരവസരം വരും അപ്പം അതുകൊണ്ട് അങ്ങനത്തെയുള്ള സാഹചര്യങ്ങളില് അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഒഴിവാക്കാനും വേണ്ടി എനിക്ക് കൂടുതലിഷ്ടം ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനാണ് കാരണം അങ്ങനെ യാത്ര ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കി നമുക്കിഷ്ടം ഉള്ള സ്ഥലത്ത് പോകുകയും ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും മുന്നോട്ട് പോകാനെക്കെ ഒരു ത്രാണി നമുക്ക് ഒറ്റയ്ക്കാണെങ്കിൽ കിട്ടും അപ്പം എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ട്രെന്ഡ് ആണ് എനിക്ക് ഏറ്റവും കൂടുതലിഷ്ടം രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ റൂട്ട്കള് എനിക്കേറ്റവും ഇഷ്ടം അങ്ങനെ പെടുന്നത് റൂട്ടുകളെന്ന് പറയുന്നത് കൂടുതലും ഈ ആൾക്കാരൊക്കെ ആളുകളൊക്കെ ഒഴിഞ്ഞ ആളുകളൊക്കെ ഒഴിഞ്ഞ വഴികളില് കൂടി എനിക്ക് യാത്ര ചെയ്യാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം കാരണം ബൈക്കായിട്ട് നമ്മൾ കാറുകൾ എത്തിപ്പെടാൻ പറ്റാത്ത റോഡുകളിലൂടെയൊക്കെ നമുക്ക് യാത്ര ചെയ്യുന്നത് വഴി നമുക്ക് കൂടുതൽ സ്ഥലങ്ങൾ കാണാനും മറ്റുള്ളവർ കാണാൻ പറ്റാതെ സ്ഥലങ്ങളിലൂടെ മറ്റുള്ളവർ എന്ന് വെച്ചാൽ സാധാ ഒരു യാത്രക്കാർക്ക് കാണാൻ പറ്റാത്ത വഴികളിലൂടെ നമുക്ക് പോകാനും നമുക്ക് ഇത്ര റൂട്ടിലൂടെ നമുക്ക് പറ്റും മാത്രം അല്ല എനിക്ക് ഈ അഡ്വെഞ്ചേസ് ആയിട്ടുള്ള റൈഡുകളും പിന്നെ ഈ വനത്തിൽക്കൂടെയെക്കെ ആണെങ്കിലും ബൈക്കോടിച്ച് ഒക്കെയെന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണെനിക്ക് ബൈക്കുകളിൽ കൂടുതലിഷ്ടം പിന്നെ ലക്ഷ്യസ്ഥാനങ്ങളെന്ന് പറയുന്നത് ഒരു ഇന്ത്യ ഫുള്ള് കവറ് ചെയ്യുന്ന തക്ക ഒരു ടൂറാണ് കൂടുതലും ഞാൻ ബൈക്കുകളിലിൽ നിന്നെനിക്ക് ഇഷ്ടം കാരണം അതാണെങ്കിൽ നമുക്ക് ഏത് സാഹചര്യത്തിലൂടെ ഏത് വഴികളിലൂടെ പോകാനും നമുക്ക് ഒരു കാർ അല്ലെങ്കിൽ ഒരു ജീപ്പിന് എത്തിപ്പെടാൻ പറ്റാത്ത വഴിയിൽക്കൂടെ ഒക്കെ നമുക്ക് ബൈക്കായിട്ട് പോകാൻ പറ്റും മാത്രമല്ല ബൈക്ക് അല്ലെങ്കിൽ അല്ല സോറി ജീപ്പ് അല്ലെങ്കിൽ കാറിനൊക്കെ ആണെങ്കിൽ ഒരു യാത്രക്കിടയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു പണിയെല്ലാം വന്നെങ്കിൽ അത് ശരിയാക്കി മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ ചെലവേറിയ ഒരു കാര്യമാണ് എന്നാൽ ബൈക്ക് ഒക്കെ ആണെങ്കിൽ അത് ശരിയാക്കി മുന്നോട്ട് പോവാനായിട്ട് വളരെ എളുപ്പമാണ് അപ്പം ബൈക്ക് ബൈക്ക് യാത്രയാണ് എനിക്ക് കൂടുതലും കാറുകളും ജീപ്പുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കൂടുതലും ഇഷ്ടം അതും ഇതും ഈ പറഞ്ഞത് പോലെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും പിന്നെ ഈ ഇടവഴികളിലൂടെ ലക്ഷ്യസ്ഥാനത്തെത്താനും പിന്നെ കൂടുതൽ ആൾക്കാരായി കൂടുതൽ ബൈക്ക് വഴി ബൈക്കിലൂടെ യാത്ര ചെയ്യുന്നത് വഴി കൂടുതൽ കൂടുതലായി നമ്മളോരോ കാഴ്ചകൾ കാണാനും നമുക്ക് പറ്റും അപ്പം സാധാ ഒരു കാറിലോ ജീപ്പിലോ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്കത്രയും ഒരു എക്സ്പീരിയൻസ് നമുക്ക് അല്ലെങ്കിൽ അത്രയും ഒരു അറിവ് അറിവില്ല അത്രയും നമുക്കൊരു എക്സ്പ്ലോറ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇപ്പം ബൈക്ക് ഒക്കെ ആണെങ്കില് നമുക്ക് എല്ലാം ആസ്വദിച്ച് കേട്ട് പോകാനാണെങ്കിലും കാലാവസ്ഥയൊക്കെ ആണെങ്കിലും പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനും ബൈക്ക് നമ്മളെ സഹായിക്കും